ഏതൊരു കലയാണെന്ന് ഉണ്ടെങ്കിൽ ക്കൂടി ആ കുട്ടിയുടെ ഏറ്റവും ചെറിയ പ്രായത്തില് അതിനേ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന പ്രധാനം ആയിട്ടുള്ള കാര്യം കാരണം എന്താന്ന് വെച്ചാല് പലരും ഒരു കുട്ടിയിലൊരു പ്രധാന കഴിവ് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിലും പക്ഷേ ആ കുട്ടിനെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും മാതാപിതാക്കളുടെ പൊതുവായിട്ടുള്ള കാഴ്ച്ചപ്പാട് അപ്പോൾ വിദ്യാഭ്യാസ രംഗം പുസ്തകത്തിൽ മാത്രം ആ കുട്ടീനെ ഒതുക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ചിത്ര രചന എന്ന് പറയുന്നത് ആ കുട്ടിക്ക് അങ്ങനൊരു കഴിവ് ഉണ്ട് എന്നുണ്ടെങ്കില് ഏറ്റവും ചെറിയ പ്രായത്തില് ഒരു നാലോ അഞ്ചോ വയസ്സില് തന്നെ കുട്ടികൾക്ക് പല നിറങ്ങള് വാങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനൊരു പുസ്തകം വാങ്ങിക്കൊടുത്തിട്ട് അവനിഷ്ട്ടമുള്ളത് പോലെ ചിത്രങ്ങള് വരക്കാനായിട്ട് ആവശ്യപ്പെട്കയും അതിന് കുട്ടികള് വളർന്ന് വരുമ്പോൾ അവരിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും പിന്നെ അതേപോലെ എന്താണ് അന്ന് വരച്ചത് എന്താണ് ഇപ്പോൾ അവര് വരയ്ക്കുന്നത് എന്ന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും കാരണം അവർക്ക് പണ്ട് മുതലേ അതിനുള്ള എല്ലാ തലത്തിലുള്ള സം എല്ലാ തലത്തിലുള്ള സഹായം നമ്മള് ചെയ്ത് കൊടുക്കുക കാരണം എന്തെന്ന് വെച്ചാല് അത്തരം ചെറു പ്രായം എന്ന് പറയുന്നത് അവർക്ക് സഹായിച്ച് കൊടുത്താല് അവരത്തരം കാര്യങ്ങള് ചെയ്ത് എളുപ്പത്തിലേക്ക് അതിനേ കൂടുതൽ ഫലവത്താക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഒരു നാലഞ്ച് വയസ്സില് ചെറിയ പ്രായത്തില് ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ കുത്തി വരക്കാനാണ് താൽപര്യം എങ്കിൽ കൂടി അവരുടെ രീതിയിൽ അത് ഒരു വലിയ കല ആയിരിക്കും